ലോകതലത്തിൽ ഇന്ത്യൻ കലകളുടെയും കലാകാരന്മാരുടെയും പ്രാതിനിഥ്യം വർദ്ധിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് സമീപ വർഷങ്ങളിൽ കലാരംഗത്തെ ഡിജിറ്റൽ സ്വാധീനം കലയെയും കലാകാരന്മാരെയും ബാധിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കലാ രംഗത്ത് ഇപ്പോൾ ആദ്യം ഇതിൽ ആദ്യകാലങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ ചില കുറച്ച് ആൾക്കാർ ഈ കലകൾ ഏർപ്പെടുകയും കലകൾ ചെയ്യുന്നത് പെയിൻറിംഗ് കൈയ്യും കൊണ്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കൈയ്യും കൊണ്ട് കൈയ്യും കൊണ്ട് ചെയ്യുന്നതൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റ് ഡിജിറ്റലിൻ്റെ സ്വാധീനം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഫോണിലൂടെ തന്നെയാണ് കമ്പ്യൂട്ടറിലൂടെ തന്നെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ കല ഇങ്ങനെ ഓരോ കലാരങ്ക ക കല കലകൾ വരച്ച് ഉണ്ടാക്കാനും എഴുതാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നാൽ ആ പഴയകാലത്ത് അതൊന്നും ഇല്ലായിരുന്നു എല്ലാവരും കൈ കൊണ്ടാണ് എല്ലാം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് മാറിയിട്ടുണ്ട് ഡിജിറ്റലിൻ്റെ സ്വാധീനം വന്നതോടുകൂടി അങ്ങനെയുള്ള കലയെയും കലാകാരന്മാരെയും നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്